നമുക്ക് വാഴകൃഷി കപ്പ അങ്ങനത്തെ ഉല്പന്നങ്ങള് നം നമ്മുടെ വീട്ടിൽ ഉണ്ട് അത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് വേറെ ആളുടെ അടുത്ത് കൊടുത്തിട്ടു നമ്മൾ അത് വില്ക്കും കപ്പയും വാഴയും നമ്മളത് വിറ്റിട്ട് നമ്മൾ അവർക്ക് അവർ നമ്മളെ വിറ്റിട്ട് നമുക്ക് പൈസ കൊണ്ട് തരും എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ വേണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ചെറിയ ചെറിയ ഉല്പന്നങ്ങളാണ് നമ്മൾ വീട്ടിൽ നടത്തുന്നത് അതിനുള്ള സൗകര്യത്തിൽ നമ്മൾ വിളവ് എടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മളത് ചെയ്തു കൊടുക്കുകയും ചെയ്യും അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഉല്പന്നങ്ങളുടെ കാര്യങ്ങൾ ചെറിയ ചെറിയ കൃഷികൾ കപ്പ വാഴക്കുല വാഴക്കുല നമ്മൾ വില് വില്ക്കാന് വേണ്ടീട്ടു ആളെ ആക്കീട്ട് അതവർ വിറ്റിട്ട് നമുക്ക് കൊണ്ട് തരുമ്പോൾ നമ്മൽ അതിനു വേണ്ടുന്ന പ്രോത്സാഹനം നമുക്ക് അവർ ചെയ്തു തരും നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ അവർക്കും ചെയ്തു കൊടുക്കും